ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഓരോ ചെടികളും പുഷ്പിച്ചുനില്ക്കുന്നത് കാണുമ്പോള് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വീട്ടിലാണെങ്കില് പേരക്കാ മരമാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒരുപാട് കായ്ച്ച് കിടപ്പുണ്ട് ഇപ്പോഴത്തെ മഴ സീസണില് നല്ല രീതിക്ക് മാങ്ങാ പിടിച്ചിട്ടുണ്ട് അത് കാണുമ്പോഴും അതെല്ലാം പറിച്ച് കഴിക്കുമ്പോഴും കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചെടികളാണെങ്കില് പോലും അത് നടുമ്പോള് മുതല് അതെപ്പോള് വിരിയും അല്ലേല് അതെപ്പോള് കിളിക്കുമെന്ന് നോക്കിയിരിക്കുമ്പോള് തന്നെ അത് വിരിഞ്ഞ് അതിലിപ്പോള് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് റോസ എൻ്റെ വീട്ടില് മഞ്ഞ റോസ ഉണ്ട് വെള്ള റോസ ഉണ്ട് അതിലേറ്റവും കൂടുതലെനിക്കിഷ്ടം മഞ്ഞ റോസയാണ് അതില് വിരിഞ്ഞ് നില്ക്കുന്നതു കാണുമ്പോ ള് തന്നെ നമുക്ക് അത് അത് പിച്ചിയെടുക്കണമെന്ന് നമുക്ക് തോന്നിയാലും പക്ഷേ എനിക്കിപ്പോള് അങ്ങനെ തോന്നാറില്ല കാരണം അത് നില്ക്കുന്ന ഭംഗി കാണുമ്പോള് തന്നെ നമുക്കതിനെ നശിപ്പിക്കാനും തോന്നത്തില്ല അത്രയും ഭംഗിയിലാണ് മരങ്ങളും ചെടികളും നില്ക്കുന്നത് മഴ സീസൺ മഴക്കാലം കൂടെ ആയത് കൊണ്ട് നല്ല രീതിയില് ചെടികള് വളരുകയും നല്ല നല്ല പൂക്കളാണെങ്കിലും പല പല പത്ത് മണി ചെടിയാണെങ്കിലും അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് പൂക്കള് ഓരോ തറയിലിങ്ങനെ പിടിച്ച് നില്ക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കും അത് കാണുമ്പോള് കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരിക്കും ചെടികള് ചെടികള് നട്ടു പിടിപ്പിക്കുമ്പോള് തന്നെ നമുക്ക് ചിലതക്കെ പട്ട് പോവും അപ്പോള് നമുക്ക് ഒരുപാട് വിഷമം വരാം പക്ഷേ ചിലതൊക്ക നല്ല രീതിക്ക് പിടിച്ച് വരുകയും അതിന് കായ് പിടിക്കുകയും പൂക്കളൊരുക്കുകയും ചെയ്യുന്നു ആ ഫീലൊന്ന് വേറെ തന്നെയായിരിക്കും എൻ്റെ വീട്ടിലെ ചെടികളാണെങ്കില് തന്നെയും ഇപ്പോള് മാങ്ങയാണെങ്കിലും ഒരുപാട് മാങ്ങാ പിടിച്ചിട്ടുണ്ട് പേരക്കയാണെങ്കിലും നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കിളികൾക്കാണെങ്കിലും നമുക്കാണെങ്കില് പോലും ഒരുപാട് കായ്കള് ഈ വട്ടം കിട്ടിയിട്ടുണ്ട്